പാരമ്പര്യമായിട്ടുള്ളത് പഴം കഞ്ഞിയാണ് പഴങ്കഞ്ഞി ഇന്നും എല്ലാവരും തുടർന്ന് വരുന്ന ഒന്ന് യുവതലമുറകൾ യുവതലമുറകളുടെ ഇടയിൽ അതത്ര കാര്യം ഇല്ലെങ്കിലും ഇന്ന് അവരെല്ലാമാത് കഞ്ഞിയിലേക്ക് മറിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതിലെ വിഭവം എന്ന് പറയുന്നത് തൈര് കപ്പ പച്ചമുളക് മീൻമ്മ മീൻ വറുത്തത് അത് ഉണക്കമീൻ വറത്തതാണ് പിന്നെ മീൻ കറി പിന്നെ നമ്മളെ പയറു തോരൻ ഇതെല്ലാമാണ് അതിനുള്ള വിഭവങ്ങൾ അത് തലേദിവസത്തെ കഞ്ഞി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് അത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് ആ വെള്ളത്തിലേക്ക് തൈരും കപ്പയും ഇതെല്ലാം കൂടെ ചേർത്ത് ആ ഒഴിച്ച് ഒരുമിച്ച് കഴിക്കുന്ന ഒരു വിഭവം ഇന്നും ശരീരത്തിന് നല്ലതുമാണ് വളരെ വളരെ മനുഷ്യൻ്റെ ശരീരത്തിന് നല്ലതും അത് ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ് രണ്ടാമതായിട്ടുള്ള മീൻകറിയും ചോറും അതും ഈ ദേശപ്രദേശത്ത് തുടർന്നു വരുന്ന ഒന്നാണ് പിന്നെ കപ്പ ഇറച്ചി കറി അതും ഇന്ന് തുടർന്നുവരുന്ന ഒരു ആ വിഭവം തന്നെയാണ് പിന്നെ പുഴുക്ക് കപ്പ വാഴക്കുല ചേമ്പ് കാച്ചിൽ ഇവയൊക്കെ ഒരുമിച്ച് ഇട്ടു ഉണ്ടാക്കുന്ന ഒരു പുഴുക്ക് അതിന് പച്ചമുളക് ചമ്മന്തി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പുഴുക്ക് അത് വളരെ നല്ലതാണ് ഇന്നും അത് തുടർന്ന് വരുന്നുണ്ട് യുവതലമുറയ്ക്ക് ഒക്കെ അത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് പായസമാണ് പായസം വിവിധ തരത്തിലുള്ള പായസം ഉണ്ട് അരിപ്പായസം ഉണ്ട് പ്രഥമൻ പൈനാപ്പിൾ പായസം പിന്നെ ശർക്കര പായസം സേമിയ അങ്ങനെ അതും ഇന്നും എല്ലാ വിവാഹ കാര്യങ്ങളിലും അതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇന്നും അത് പിന്തുടർന്ന് വരുന്നു മറ്റൊന്ന് ചക്ക പുഴുക്ക് ചക്ക പുഴുക്കുണ്ട് ചക്ക അവിയലുണ്ട് ചക്ക പെരളൻ അതുപോലെ ചക്ക ഉപ്പേരി അങ്ങനെ പോയി ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ അതിന്നും യാതൊരു വിധത്തിലുമുള്ള മാറ്റവും ഇല്ലാതെ തുടരുന്ന ഒന്നാണ് മറ്റൊന്ന് വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരന് അതുപോലെ വാഴപ്പിണ്ടി കൊണ്ട് തോരനുണ്ടാക്കാം പിന്നെ ഇഞ്ചി കറി ഇതൊക്കെ ഈ ദേശത്ത് ഇന്നും തുടർന്നുവരുന്ന പരമ്പരഗതമായ ആഹാര സംവിധാനങ്ങളാണ് ഇത്രയാണ് ഉള്ളത്